ഹലോ ആ അതേ പിന്നെ വീടുപണിയൊക്കെ എവിടം വരെ ആയി ആരാണ് കോണ്ട്രാക്റ്റർ ആണല്ലേ കോണ്ട്രാക്റ്റർ ആരാണ് ആണോ രഘു ആണോ എങ്ങനെയുണ്ട് അവരുടെ പണിയൊക്കെ കുഴപ്പമൊന്നും ഇല്ല പൈസയും സാമ്പത്തിക ഇടപാടുമൊക്കെ എങ്ങനെയുണ്ട് അപ്പം ബുദ്ധിമുട്ടും കാര്യങ്ങളുമൊക്കെ ആയിരിക്കും അല്ലേ എന്നാൽ കയറി താമസിക്കാനുമൊക്കെ ഉദ്ദേശിക്കുന്നത്

ആണോ ആ അങ്ങനെയൊക്കെ ഇരിക്കുന്നു ആ പിന്നെ സാധനങ്ങളൊക്കെ എല്ലാം ഇറക്കി തീര്ന്നോ തീരാറായോ എവിടം വരെ ആയി ആ അത്രയും ദിവസത്തിനുള്ളിൽ ചെയ്തു കയറണമല്ലേ അപ്പോൾ ഓണത്തോട് അനുബന്ധിച്ച് കയറും ആ ആള്ക്കാരൊക്കെ വിളിച്ചു കൂട്ടിയൊക്കെ ആണോ നിങ്ങൾ നടത്തുന്നത് അത് ശരി ഹാ ഹാ അപ്പോൾ അങ്ങനെ അച്ചനെ വിളിച്ചു വരുത്തി പാലുകാച്ച് നടത്തുവാണോ കയറുവാണല്ലേ അത് ശരി പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പണം ഒന്നുമില്ല ആ ആ പ്രാർത്ഥിക്കാം ആ കോണ്ട്രാക്റ്റര് എങ്ങനെയാണ് നല്ല രീതിയിലൊക്കെ പണി നടത്തുന്നുണ്ടോ ആ കൊഴപ്പം ഒന്നുമില്ല അല്ലേ അപ്പോൾ അങ്ങനെ ഇരിക്കുന്നു പിന്നെ പ്രത്യേകിച്ചു വേറെ ഇതൊന്നുമില്ല സിമന്റും കട്ടയുമൊക്കെ എല്ലാം ഇറക്കുന്നുണ്ടോ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് ആ അപ്പോൾ അത് പിന്നെ വേറെ എന്നാൽ ഉണ്ട് ആ ആ നിങ്ങൾ എത്ര മുറിയാണ് ഇറക്കുന്നത് ഇപ്പം ആ എത്ര മുറിയാണ് ആ മൂന്ന് മുറി അടുക്കളയും ഹാളും ആ മേലോട്ട് കെട്ടി പൊക്കുന്നുണ്ടോ കോണ്ട്രാക്റ്ററുടെ പേര് എന്നാന്നാ പറഞ്ഞത് രഘു ഓഹോ പുള്ളിയുടെ വീട് എവിടെയാണ് നല്ല നീറ്റ് ആണോ പണിയൊക്കെ നീറ്റ് ആണോ നീറ്റായിട്ടൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ആ കുഴപ്പം ഒന്നുമില്ല മുറ്റത്തൊക്കെ ടൈൽ ഇടുന്നുണ്ടോ ആണോ ആ ടൈലൊന്നും ഇടുന്നില്ല അല്ലേ ആ ടൈലൊക്കെ ഇടാന് പാടില്ലായിരുന്നോ ടൈലൊക്കെ ഇടാന് പാടില്ലായിരുന്നോ ആണോ ആ എവിടെ നിന്നാണ് ഏതു ബാങ്കിൽ നിന്നാണ് നിങ്ങൾ ലോൺ എടുത്തിരിക്കുന്നത് അപ്പോൾ പെര പണിക്ക് വേണ്ടി ആ നിങ്ങൾക്ക് പഞ്ചായത്തിൽ നിന്നുള്ള സ്കീമൊന്നും ഇല്ലായിരുന്നോ അപ്പം ആ ഹാ ഹാ നിങ്ങൾ അതു ശരി ആ അപ്പം അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു ആ ആ അങ്ങനെ ഒക്കെ ആണ് ലോണ് എടുത്താണ് ആ അത് ശരി ആ ആഹാ പണിക്കാരൊക്കെ എത്ര പേരുണ്ട് ആ നിങ്ങൾ ഭക്ഷണങ്ങളൊക്കെ കൊടുക്കാറുണ്ടോ പണിക്കാര്ക്ക് ആണോ അവര്ക്ക് കോണ്ട്രാക്റ്റ് കൊടുത്തിരിക്കുവാണോ അവ അല്ല അല്ല ആ ആളെ വിളിച്ചു ആ ഇപ്പം എത്ര മുറിയാണ് എത്ര മുറിയെന്നാണ് പറഞ്ഞത് വര്ക്ക് ഏരിയാ വര്ക്ക് ഏരിയാ ഒന്നുമല്ലേ ഒന്നുമില്ല ആ ആ അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ പോവുന്നത് ചെറിയ ഒരു വീട് സാധാ വീടായിട്ടാണ് അല്ലേ ഓക്കെ ആ മേളിൽ ഷീറ്റ് ആണോ വാര്പ്പാണോ ഓക്കേ ശരി എന്നാൽ എന്നാൽ ശരി എന്നാൽ വിളിക്കാം കേട്ടോ പെര വസ്തുവിളിക്ക് വിളിക്കണം കേട്ടോ ദൈവം അനുഗ്രഹിക്കട്ടെ ഓക്കേ ശരി എന്നാൽ ഓക്കേ